പതിനഞ്ച് നാല് ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ട് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി എണ്പത്തിയെട്ട് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത് അഞ്ച് രണ്ടായിരത്തി പതിനാല് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി രണ്ട്